ഞാനെൻ്റെ വീട്ടില് എൻ്റെ ഏട്ടൻ്റെ കുട്ടിയുടെ പിറന്നാളിന് വേണ്ടിയിട്ട് ഞങ്ങള് സദ്യ ഉണ്ടാക്കി അന്ന് കുടുംബക്കാരും വീടിനടുത്തുള്ള കുറച്ച് പേരും അങ്ങനെയൊക്കെ കൂടിയിട്ട് ഞങ്ങള് ഒരു പത്ത് ഇരുനൂറ് പേരുടൊക്കെ പരിപാടി ആയിരുന്നു ഞങ്ങള് ഉണ്ടാക്കിയിട്ട് ഉണ്ടായിരുന്നത് അപ്പോള് സദ്യയാണല്ലോ മെയിന് പായസം അവീല് ഉപ്പേരി അങ്ങനെ ഓലൻ അച്ചാറ് പുളിയിഞ്ചി അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു അപ്പോള് പിന്നെ ഞങ്ങള് തലേന്ന് തന്നെ മാർക്കറ്റിലൊക്കെ പോയി പച്ചക്കറിയും പലചരക്കും അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി കൊണ്ടുവന്ന് വീട്ടിൽ തന്നെ എല്ലാവരും തലേന്ന് തന്നെ കട്ട് ചെയ്യാനും അതൊക്കെ ചെയ്ത് പിറ്റേന്ന് രാവിലെയായപ്പോള് ഞങ്ങള് കുക്കിങ് തുടങ്ങി പിന്നെ ഞങ്ങള് അങ്ങനെ രാവിലെ തന്നെ തുടങ്ങി ഫുഡൊക്ക അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ തുടങ്ങി അപ്പോള് ഉണ്ടാക്കി അവീലുണ്ടാക്കി സാമ്പാറുണ്ടാക്കി പായസം പാൽപ്പായസായിരുന്നു പാല് ഞങ്ങള് മിൽമ ബൂത്തില് പോയിട്ട് വാങ്ങിയിട്ട് അടയും പാലും ആയിരുന്നു അടപ്പായസമായിരുന്നു അപ്പോള് ആ പായസം ഉണ്ടാക്കി എല്ലാവരും അങ്ങനെ ഒരുവിധത്തില് ഞങ്ങളെല്ലാം ഉണ്ടാക്കി എന്നിട്ട് ഞങ്ങള് ഭംഗിയായിട്ട് വാഴയിലയില് വാഴേൻ്റെ ഇലയില് സര്വ് ചെയ്തു അങ്ങനെ അത് കഴിച്ച് എല്ലാവരും നമുക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസാണല്ലോ എല്ലാവരോടും കഴിക്കാൻ വേണ്ടി പറഞ്ഞു നല്ല അനുഭവമായിരുന്നു അന്നുണ്ടായിരുന്നത് എല്ലാവരും നല്ല അടിപൊളിയായി സദ്യ എന്നാണ് പറഞ്ഞിട്ടുള്ളത്